പുതിയ തലമുറയിലെ സൗഹൃദങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പുതിയ തലമുറയിലെ സൗഹൃദം എന്നു പറയുകയാണെങ്കില് നേരത്തേലും പണ്ടത്തെതിൽനിന്നും വ്യത്യാസം നേടിയിട്ടുണ്ടായിരുന്നു ന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടാണെങ്കില് ബോയിസും ഗേൾസൊന്നും എന്ന് വെച്ചൊരു വേർതിരിവുണ്ടായിരുന്നു പക്ഷേങ്കില് ഇപ്പോൾ അതില്ല എല്ലാരും ഒത്തൊരുമിച്ച് അങ്ങനത്തെ ഒരു സൗഹൃദമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇകോളിറ്റി എന്ന് പറയുന്നതില് ഇപ്പോൾ നല്ലൊരു നല്ലൊരു മുതൽകൂട്ടാണ് നമ്മുടെ പുതിയ തലമുറ ആരും വേർത്തിരിച്ചൊന്നും കാണുന്നില്ല പഴയ തലമുറയിൽ എപ്പൊഴും വേർത്തിരിവും കാര്യങ്ങളൊക്കെയായിരുന്നു ഫ്രണ്ട്ഷിപ്പില് ഇപ്പം അത് തീരെത്തന്നെ കാണുന്നില്ല അത് നല്ലൊരു കാര്യമാണ് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതും എല്ലാം എല്ലാം വർദ്ധിച്ചിട്ടുണ്ട് പഴയ പഴയ കാലങ്ങളിലായിരുന്നെങ്കില് ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാരുന്നു ഫ്രണ്ട്സിനിങ്ങനെ അത് അത് ആൺകുട്ടികൾക്ക് മാത്രമേ അതവിടെയെല്ലാം അനുവദിക്കുകയുള്ളായിരുന്നു പെൺകുട്ടികളെല്ലാം അവിടേയും അന്നേരം ഒഴിവാക്കി നിർത്തുകയായിരുന്നു അതുപോലെള്ള ക്ലബ്ബ് കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാതെ അതല്ല അവസ്ഥ കോളേജുകളിലും ഓരോ പ്രോഗ്രാംസിലെല്ലാം അവരുടേയും എല്ലാരും ഒത്തൊരുമിച്ചുള്ളൊര് സാന്നിധ്യം ഉണ്ടായി അത് നല്ലൊരു കാര്യമായിട്ടെനിക്ക് തോന്നി നല്ലതാ അതിപ്പൊഴൊര് നമുക്കൊരു അത് റവല്യൂഷൻ സംഭവിച്ചതിൽകൂടെ നമ്മൾക്ക് കിട്ടിയതാണ് നമ്മൾക്ക് കൂടുതല് അതാണ് വേണ്ടതെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെപറയാന്ന് വെച്ച്കഴിഞ്ഞാല് സൗഹൃദം ചില സൗഹൃദങ്ങള് കുഴപ്പത്തിലും ചെന്ന് ചാടാറുണ്ട് എല്ലാം നൂറു ശതമാനവും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോളോക്കെ അത് പാളിപ്പോകാൻ സാഹചര്യങ്ങളുണ്ടാവും അപകടങ്ങൾ സാധ്യ സാധ്യ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും